ഞാൻ കഴിഞ്ഞ ദിവസം ആ യൂത്ത് ഫെയ്സ്ന്ന് പറയുന്നൊരു ക്രീമ് വാങ്ങി ഈ ക്രീമിൽ നമുക്ക് വൈറ്റ്നിങ്ങും പിംപിൾസും പോകും അതിന് നല്ലൊരു മികച്ചൊരു റിസൽട്ടാണെനിക്ക് കിട്ടിയത് പെട്ടെന്ന് തന്നെ അതായതൊരു ഒരാഴ്ചകൊണ്ടുതന്നെ എൻ്റെ എല്ലാ മുഖക്കുരുവും മാറി ടാൻ പോയി അതെന്ന് വെച്ചാല് പെട്ടെന്നുതന്നെ നമുക്ക് നമ്മുടെ നമ്മള് മുടക്കുന്ന പൈസക്ക് വർത്താണിത് അത് നമ്മള് പെട്ടന്നുതന്നെ അതിൻ്റെ റിസൽട്ടൊക്കെ കിട്ടുന്നുണ്ട്